ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾ കൂടുതലായിട്ട് ലാപ്ടോപ്പുകളും മൊബൈലുകളും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ എന്നത് ഒരു വലിയ സത്യമാണ് പ്രത്യേകിച്ച് വീടുകളിൽ കുട്ടികൾ പഠിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ഒരു പരിധിവരെ ഇന്ന് നമ്മുടെ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റായതിന് ലോക്ക്ഡൗൺ കാരണമായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും കാരണം അതുവരെ കുട്ടികൾക്ക് ഫോണൊന്നും മറ്റും സ്വതന്ത്രമായിട്ട് കിട്ടിയിരുന്നില്ല എന്നെടുത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് ഫോണുകളും മറ്റുമൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുകയും അതിൻ്റെ ഓപ്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുകയും പിന്നീട് അങ്ങനെ കുട്ടികൾ അതിന് അഡിക്റ്റാകുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് മിക്കവാറും മീറ്റിംഗുകൾ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഓൺലൈനായിട്ടായിരുന്നു അതൊരു വലിയ അനുഭവമായിരുന്നു കാരണം ഒരുപൊരു ഒരു ഓൺലൈൻ മീറ്റിങ്ങൊക്കെ നടത്തുകയാണ് എങ്കിൽ സൂമിലും ഗൂഗിളിലൊക്കെ നമ്മൾ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്തുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും ഇരിക്കുന്നു അവരൊക്കെ പരസ്പരം കണ്ടു കൊണ്ട് വീഡിയോയിൽ കണ്ടു കൊണ്ടു തന്നെ മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി പറ്റിയിരുന്നതൊക്കെയൊരു വലിയ അനുഭവമാണ്